ഞങ്ങളുടെ പ്രദേശം ഒരു റിമോട്ട് ഏരിയ ആണ് എന്നാലും അവിടെ വിനോദസഞ്ചാരികള്ക്ക് ആകര്ഷകമായ പിന്നെ കേവ് റോക്ക് കേവ് പിന്നേ ജടായു ടൂറിസം മേഖല ഇങ്ങനെയൊക്കെ കുറച്ച് സംവിധാനങ്ങള് ഞങ്ങൾക്ക് കാണാനായിട്ട് എട്ട് പത്ത് കിലോമീറ്ററിനകത്ത് ഉണ്ട് അപ്പോൾ അവിടെ വരുന്ന വിനോദസഞ്ചാരികള് വഴി ഞങ്ങളുടെ പ്രദേശത്ത് തൊഴിലവസരങ്ങള് മെച്ചപ്പെടുത്താന് എന്ന് പറയുമ്പോൾ വാഹനം ഉള്ളവരുണ്ട് ഓട്ടോറിക്ഷ ജീപ്പ് അങ്ങനെയുള്ള വാഹനം ഓടിച്ച് ജീവിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവര്ക്ക് കൂടുതല് വിനോദസഞ്ചാരികള് വരുമ്പോൾ അവര്ക്ക് അവരുടെ ഫോണ് നമ്പർ മറ്റ് എവിടെയെങ്കിലും ഒന്ന് പരസ്യപ്പെടുത്തിയിട്ട് അവരിലൂടെ ഈ ഈ പ്രദേശത്തുള്ള ആളുകളെ അവർ വിനോദസഞ്ചാരികളെ കൊണ്ടുവരുന്നതിനും കൊണ്ടുവരുന്നതിന് പോകുന്നതിനും വരുന്നതിനുമായിട്ട് ഉപയോഗിക്കുകയും പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളുണ്ട് അവിടെ ഈ വിനോദസഞ്ചാരികള്ക്ക് താല്പ്പര്യമുള്ള കരകൗശല വസ്തുക്കളോ അവര്ക്ക് ആവശ്യമുള്ള സാധനങ്ങളോ ഒക്കെ പ്രദര്ശിപ്പിച്ചുകൊണ്ട് അങ്ങനെ കൂടുതല് കച്ചവടം നടത്തുന്നതിനും പിന്നെ ഇവര്ക്ക് ഗൈഡ് ആയിട്ട് ഞങ്ങളുടെ വിദ്യ പടി പഠിത്തം കഴിഞ്ഞ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള പിള്ളേർ തൊഴിലില്ലാതെ നിൽക്കുന്ന കുട്ടികള്ക്ക് ഒരു ഇവര്ക്ക് ഗൈഡന്സ് കൊടുക്കുന്നതിന് വരുന്ന വിനോദസഞ്ചാരികള്ക്ക് ഗൈഡന്സ് കൊടുക്കുന്നതിന് അവർ വഴി അവരുടെ സഹായം തേടിക്കൊണ്ട് അവര്ക്കും ഒരു ചെറിയ ഫീസും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഒരുപാട് വരുമാന മാര്ഗം ലഭിക്കുന്നതിന് അത് നല്ലൊരു ഉപാധിയാണ് പിന്നെ പ്രാദേശികമായിട്ട് ലഭിക്കുന്ന സാധനങ്ങൾ അതായത് പിന്നെ ഓര്ഗാനിക്ക് ആയിട്ട് ഉണ്ടാക്കുന്ന പച്ചക്കറികൾ പഴങ്ങൾ പിന്നെ സീസണല് ഫ്രൂട്ട്സ് ഓരോ പ്രദേശത്ത് കിട്ടുന്ന പഴങ്ങൾ പിന്നെ അവിടെയുള്ള ഫുഡ് മെറ്റീരിയല്സ് ഇതൊക്കെ വിവിധ തൊഴിലില്ലാത്ത വനിതകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരിലൂടെ ഇത് വിപണനം നടത്തി ഇപ്പോൾ ഉദാഹരണമായിട്ട് ചമ്മന്തിപ്പൊടി പിന്നെ അച്ചാറ് പിന്നെ ചക്കവരട്ടി മാങ്ങയുടെ സീസൺ ആണെങ്കിൽ മാങ്ങാത്തെര അങ്ങനെയുള്ള കാര്യങ്ങള് ഉണ്ടാക്കി ഇവര്ക്ക് അതില് ഇവർക്ക് വില്പ്പന നടത്തുന്നതിനും അങ്ങനൊരു വരുമാന മാര്ഗം ഉണ്ട് ഉണ്ടാകുന്നതിനും അത് നല്ലൊരു മാര്ഗം ആണ് പിന്നെ ഞങ്ങളുടെ മേഖലയിലെന്ന് പറയുമ്പോൾ റബ്ബർ ആണ് കൂടുതൽ ഞങ്ങൾ ഞങ്ങളുടെ കൃഷി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു അത് റബ്ബര് കര്ഷകര്ക്ക് വലിയ നേട്ടം ഉണ്ടാകുന്നില്ല പക്ഷേ തെങ്ങ് തേങ്ങ പോലെയുള്ള കാര്യങ്ങളില് നിന്ന് അതില് നിന്നും മൂല്യവര്ധിത ഉല്പ്പന്നങ്ങള് ഉണ്ടാക്കി വില്ക്കാനായിട്ട് സാധിക്കും പിന്നെ കപ്പ ഈ അങ്ങനെയുള്ള സാധനങ്ങളില് നിന്നും ചിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങള് ഉണ്ടാക്കി വിറ്റാലും വരുമാന മാര്ഗം ആവും നല്ല ഫുഡ് വരുന്നവര്ക്ക് ഫുഡ് അവൈലബിൾ ആക്കി കൊണ്ട് അതും ഒരു വരുമാനമാര്ഗം ആക്കാൻ പറ്റും പിന്നെ എന്നുപറയുമ്പോൾ പ്രത്യേകമായിട്ട് പറയാനുള്ളത് വാഹന സൗകര്യം ആ പിന്നെ പിന്നെ അവര്ക്ക് ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക താമസസൗകര്യം ഒരുക്കി കൊടുക്കാം ഹോം സ്റ്റേകൾ ഹോം സ്റ്റേകൾ വീടുകൾ സജ്ജമാക്കിക്കൊണ്ട് അവര്ക്കുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊടുത്താൽ അത് റെന്റിന് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും വിനോദസഞ്ചാരികളിൽ നിന്നും നമുക്ക് മോശമായ അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല അവർ വളരെ ഞങ്ങളും നല്ല രീതിയിലാണ് അവരോട് ഇടപെടുന്നത് അവരും നന്നായിട്ടാണ് നമ്മളോട് ഇടപെടുന്നത് നമ്മുടെ അവർ വരുമ്പോൾ എല്ലാം നീറ്റ് ആന്ഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുകയും എടുക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് മോശമായ അനുഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മുടെ പ്രദേശം സന്ദര്ശിക്കുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ പ്രദേശത്ത് ഉള്ള ആളുകളെ കൊണ്ടുതന്നെ നമുക്ക് ആ വൃത്തികേടാവുന്ന സ്ഥലങ്ങൾ അപ്പം അപ്പം വൃത്തിയാക്കി ഇടീപ്പിച്ച് അതില് നിന്നും ഒരു വരുമാനം അവര് ആ വൃത്തിയാക്കുന്ന തൊഴിലാളികള്ക്കൊരു വരുമാനം നമുക്ക് കൊടുക്കാൻ സാധിക്കും അതിനൊക്കെ ഒരു ഒരു കൂട്ടായ്മ സ്രീ സ്ത്രീകളുടെ ആണെങ്കിലും പുരുഷന്മാരുടെ ആര് ആണെങ്കിലും ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് വിനോദസഞ്ചാരികള് സഞ്ചരിക്കുന്ന സ്ഥലം അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിക്കൊണ്ട് അവിടെ വീണ്ടും വൃത്തിയായിട്ട് അതുപോലെ അവർ ഉപയോഗിക്കുന്ന ബാത്രൂമുകൾ ഒക്കെ വൃത്തിയാക്കി ഇടുന്നതിനുമൊക്കെ കുറച്ചുപേരുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് അത് വൃത്തിയാക്കി ഇടുന്നത് വഴി അവര്ക്കൊരു ചെറിയ വരുമാനം നേടിക്കൊടുക്കാന് സാധിക്കും കൂടാതെ പറഞ്ഞല്ലോ ഇതുപോലെ നമ്മുടെ പ്രദേശത്തുള്ള നല്ല നല്ല വെറൈറ്റി ഫുഡ് ഐറ്റംസ് അവര്ക്ക് കൊണ്ട് കൊടുക്കുന്നതിനും അത് വഴി അവര്ക്ക് അതില് നിന്നും ഉണ്ടാകുന്ന വരുമാനം നമുക്ക് കിട്ടി നമ്മുടെ അങ്ങനെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റമുണ്ടാകുന്നതിന് സഹായിക്കും ഇങ്ങനെ പല മാര്ഗങ്ങളിലൂടെ തൊഴില് ഇല്ലാത്ത യുവാക്കള്ക്കും യുവതികള്ക്കും വീട്ടമ്മമാരായിട്ട് ഉള്ളവര്ക്ക് വരുമാനം ഉണ്ടാകുന്നതിനും ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പണികളിലൂടെ സാധിക്കും പിന്നെ കരകൗശല വസ്തുക്കൾ ഇപ്പം ചിരട്ട പോലെയുള്ള സാധനങ്ങൾ തൊണ്ട് ഇങ്ങനെ കളയുന്ന പ്ലാസ്റ്റിക്ക് ഉപയോഗവില്ലാത്ത പ്ലാസ്റ്റിക്ക് ഇതുകൊണ്ടൊക്കെ നല്ല ആകര്ഷകമായ നല്ല കരകൗശല വസ്തുക്കള് ഉണ്ടാക്കി അതും നമുക്ക് പ്രദര്ശിപ്പിച്ചാൽ അതില് കൂടെ നമുക്കൊരു വരുമാനം ലഭിക്കുന്നതാണ് പിന്നെ നമ്മുടെ വസ്ത്രങ്ങൾ തുണികൾ തയ്ച്ചുകൊടുത്ത് അവര്ക്ക് ഒരു ആകര്ഷകമായ രീതിയില് അവര്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ തയ്ച്ച് അതും ഒരു കൊടുത്താലും പൈസ നമുക്ക് സമ്പാദിക്കാവുന്നതാണ് അങ്ങനെ വിവിധ മാര്ഗങ്ങളിലൂടെ നമ്മുടെ പ്രദേശത്തെ തൊഴിലവസരങ്ങള് മെച്ചപ്പെടുത്താന് സാധിക്കും അതിലൂടെ നമുക്ക് വരുമാനം ലഭിക്കുന്നതിന് സാധിക്കും അങ്ങനെ അവര്ക്കും ഒരു ഇൻടറസ്റ്റ് ആയിട്ട് തോന്നും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന അഭിപ്രായം